എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാന് ഓരോ ദിവസം ഓരോ വിഭവങ്ങള് പരീക്ഷിച്ചിങ്ങനെ നോക്കും എന്നിട്ട് പുരയിലെ ഉമ്മാക്ക് ഉപ്പാക്ക് പിന്നെ മക്കൾക്ക് കാക്കു ഉണ്ടെങ്കിൽ കാക്കുവിന് അവർക്കൊക്കെ കൊടുക്കും ഓക്ക് ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരിങ്ങനെ അഭിപ്രായം പറയും എന്തുണ്ടാക്കി കൊടുത്താലും ഓരഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര ടെൻഡൻസി കൂടും അപ്പോൾ അവരുടെ സന്തോഷമല്ലെ അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം നമ്മളത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് നമ്മള് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഒക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ പുരയിലിരിക്കുന്ന പുരയില് നമ്മള് ഞായറാഴ്ച്ച ദിവസങ്ങളിലെ ഇരിക്കുകയുള്ളു അപ്പോൾ പുരയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മള് നോമ്പിൻ്റെ സമയത്താണ് പിന്നെ ഓരോ സാധനങ്ങളുണ്ടാക്കുക പിന്നെ ഈ കല്ലുമ്മക്കായ വച്ചിട്ടുണ്ടാക്കുന്ന ഡിഷൊക്കെ ഭയങ്കര ഇഷ്ട്ടമാണ് കല്ലുമ്മക്ക ഭയങ്കര ഇഷ്ട്ടാമാണ് കല്ലുമ്മക്ക കൊണ്ട് വെച്ചിട്ട് നമ്മള് പിന്നെ കുറെ കുറെ പിന്നെ വെറൈറ്റി നോക്കും പിന്നെ ബിരിയാണി മട്ടൻ സ്റ്റൂ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്യാൻ നോക്കാറ്